അതായത് വിനോദ സഞ്ചാരിയോടൊത്തുള്ള എൻ്റെ അനുഭവം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് എറണാകുളത്തൊരു കസിനുണ്ട് അപ്പോൾ അവരിങ്ങനെ ഞാൻ ഇതുവരെ എറണാകുളമൊന്നും പോയിട്ടില്ല അപ്പോൾ എറണാകുളം പോയിട്ടില്ല അങ്ങനെ ട്രെയിനിലൊന്നും കയറിയിട്ടില്ല ഇതുവരെ അപ്പോൾ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ വയനാടൊക്കെ ഇങ്ങനെ വെറുതെയൊന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി ഇങ്ങനെ പോകും അപ്പോൾ അവരിങ്ങനെ നമ്മളോട് എറണാകുളത്തെ എറണാകുളത്തിനെക്കുറിച്ചും പിന്നെ അവർ പോയ സ്ഥലങ്ങളെക്കുറിച്ചും പിന്നെ ഗോവയിലുള്ള ബീച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്കൊന്നു കാണാനൊക്കെ തോന്നും പിന്നെ ട്രെയിനിൽ പോകുന്ന അനുഭവങ്ങൾ പിന്നെ അവിടെയാണല്ലോ മെട്രോയൊക്കെയുള്ളത് അപ്പോൾ മെട്രോയിലൊക്കെ പോയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ അവൻ ഭയങ്കര അതായത് ട്രിപ്പിനു പോകുവാൻ ഭയങ്കര താല്പര്യം ഉള്ള ഒരു ആളാണ് അപ്പം നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യും പിന്നെ അപ്പോൾ അവർ വന്നിട്ടുണ്ടെങ്കിലാണ് നമ്മളിപ്പം ഇവിടെ വയനാട്ടിലാണെങ്കിലും കുറേ സ്ഥലങ്ങളിൽ പോകണമെങ്കിൽ അവരൊക്കെ വരണം പിന്നെ എറണാകുളത്ത് നമ്മളിതുവരെ പോയിട്ടില്ല അപ്പോൾ അവിടുത്തെ ഇങ്ങനെ ലുലുമാളിനെപ്പറ്റിയും അങ്ങനെയെല്ലാം പറയും എൻ്റെ ഒരു അനുഭവം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൂടെ ഉള്ളൊരു അനുഭവമാണ്